ഹലോ ഞാൻ അവിടെ നിന്ന് ഒരു ട്ടാ ഇത് വിളിച്ചിട്ടുണ്ടായിരുന്നു ക്യാബ് വിളിച്ചിട്ടുണ്ടായിരുന്നു ആ എനിക്കൊന്ന് തിരുവനന്തപുരം വരെ പോകാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ആ ക്യാബിൻ്റെയൊരു അവസ്ഥയെ പറ്റിയിട്ടാണ് ഞാൻ ഇപ്പോൾ പറയുന്നത് കാരണം വളരെ മോശമായിട്ടുള്ളൊരു രീതിയിലുള്ള ക്യാബാണ് നിങ്ങൾ എനിക്ക് അയച്ച് തന്നത് കാരണമെന്താ വെച്ച് കഴിഞ്ഞാൽ ആ അതിൻ്റെ ബേക്കിലുള്ള സീറ്റുകളെന്ന് പറഞ്ഞാൽ വളരേ വൃത്തിഹീനമായിട്ടുള്ള സീറ്റുകൾ സീറ്റ് പകുതിയും കീറി അതിൻ്റെ പഞ്ഞിയും കാര്യങ്ങളൊക്കെ പുറത്ത് വന്ന ഒരവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് അല്ല അതല്ല അതല്ല നിങ്ങൾ ഞാൻ ഞാനിപ്പൊരു എന്താ എനിക്കിപ്പോൾ നല്ല ഏതേങ്കിലും യാത്ര ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു ആളാണ് അപ്പോൾ നല്ല രീതിയിൽ യാത്ര ചെയ്താൽ മാത്രമേ എൻ്റെ എന്താ പറയുക ഇപ്പോൾ എനിക്ക് പല അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കിയിട്ട് ഞാനിപ്പോൾ എന്തായാലും എനിക്കിത്രയും വയസ്സ് കാര്യങ്ങളൊക്കെ ആയതാണ് അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളൊരു വണ്ടി അയച്ചു തരാം ഇതിപ്പോൾ ഞാനിപ്പോൾ അതൊരു പത്ത് അമ്പ അറുപത് വയസ്സുള്ള ഒരാൾ തിരുവനന്തപുരം വരെ പോകാൻ വേണ്ടിയിട്ട് ഒരു വണ്ടി വിളിച്ചു അപ്പം അയാൾക്ക് ഇത് ഇങ്ങനത്തൊരു വണ്ടി മതതിയെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകും അല്ല അതല്ല അതു തന്നെ അതു തന്നെ സംഭവം എങ്ങനാ വെച്ചാൽ ഇതിൻ്റെ മര്യാദക്കൊരു ഹോൺ പോലും മര്യാദക്ക് വർക്ക് ചെയ്യുന്നില്ല പോണയാൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണോ അടിക്കുന്നതെന്ന് നമുക്കറിയാം ഇടക്കുണ്ടാകുന്നു പഞ്ചറാകും ചെയ്തു വെറും വൃത്തിക്കെട്ടൊരു ടയറാണ് അതിന് ര നാല് ടയറും അത് വളരെ മോശമായിട്ടുള്ളൊരു ടയറാ ഒന്ന് റോഡിലിറങ്ങി കഴിഞ്ഞാൽ മതി അത് പഞ്ചറാകാനും കാര്യങ്ങൾക്കൊക്കെ അപ്പോൾ രണ്ടും മൂന്നു വട്ടം പഞ്ചറായി ഈ കാര്യങ്ങളൊക്കെ അതിന് മോശമായിട്ടുള്ളൊരു കാര്യമാണ് അതെ അതെ അതെ ഞാൻ ഇനിയെന്തുവായാലും മേലാൽ നിങ്ങളുടെ ക്യാബ് ഞാൻ നിങ്ങളുടെ ഏജൻ ഏജൻസിയെ ഞാൻ വിളിക്കാറില്ല കാരണം ഞാൻ വേറെ പല ഏജൻസിയെയും ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് ഞാനിതൊരു കംപ്ലൈൻറ്റ് ആയിട്ട് കൊടുക്കുന്നില്ല കാരണമെന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്തത് ചെയ്തു ഇനി വെ ഇനിയെന്താ പറയുക ഇനി നിങ്ങളെ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യാണ്ടിരുന്നാൽ മതിയല്ലോ ഓക്കെ ഏയ് ശരി ശരി മതി മതി നിങ്ങളോട് ഇനി കൂടുതലായിട്ട് എനിക്ക് പറയാനൊന്നുമില്ല ശരി